ഇതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് കംഫർട്ടബിള് ആയിട്ട് തോന്നുന്നത് ഇംഗ്ലീഷാണ് കാരണം മലയാളം നമുക്ക് ഭയങ്കരം ടഫാണ് അപ്പോഴും ഇപ്പോഴും ടഫാണ് പറയാനും കേള്ക്കാനും വായിക്കാനുമൊക്കെ ടഫാണ് ഏറ്റവും കൂടുതല് പാട് വായിക്കാനാണ് പറയാനല്ല സംസാരിക്കാന് ഇത്തിരി പാടാണ് ഇംഗ്ലീഷില് എനിക്ക് രണ്ടുമൂന്നെണ്ണത്തിനൊക്കെ റാങ്ക് കിട്ടിയിട്ടുണ്ട് എക്സാംസിനൊക്കെ ഫുൾ മാർക്സായിരുന്നു എനിക്ക് ഫുള് മാർക്ക് സോറി ഫുൾ മാർക്സ് അല്ല മറ്റ് എന്താണ് പറയുക എക്സാംസിനൊക്കെ എനിക്ക് നല്ല നല്ല മാർക്കുകളുണ്ടായിരുന്നു ഇംഗ്ലീഷ് എന്നുപറഞ്ഞാല് എനിക്ക് ഭയങ്കരമിഷ്ടമുള്ള സബ്ജക്റ്റാണ് സത്യം പറയാമല്ലോ ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരം ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ഭയങ്കരം ഇഷ്ടമെന്ന് പറഞ്ഞാല് ഭയങ്കരം ഇഷ്ടമാണ് കാരണം ഭയങ്കരം എളുപ്പം സബ്ജക്റ്റ് അതായിരുന്നു മലയാളത്തെക്കാളും മലയാളത്തിനെക്കാള് ഇംഗ്ലീഷ് ഭയങ്കരം എളുപ്പമാണ് അതിപ്പോള് ഹയർ സ്റ്റഡീസ് എത്തിയിട്ടും ഇംഗ്ലീഷ് എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നുന്നത് കാരണം ഇംഗ്ലീഷ് എക്സാം ഇപ്പോള് ഇപ്പോള് എക്സാംസൊക്കെ എനിക്ക് ടഫായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോള് ഞാൻ പഠിത്തത്തിൽ പിന്നോട്ടേക്കായതിന് ശേഷം ടഫായിട്ട് തോന്നുന്നുണ്ട് സി ബി എസ് ഇയിലൊക്കെ പഠിച്ചപ്പോള് ഞാൻ മുന്നോട്ടേക്കായിരുന്നു നല്ല അടിപൊളിയായിട്ട് അടിച്ചുപൊളിച്ച് പഠിക്കുമായിരുന്നു പഠിച്ചില്ലെങ്കിലും എങ്ങനെയൊക്കെയോ പാസാകുന്നുണ്ടായിരുന്നു ഞാൻ പടച്ചവന്റെ ഒരു ഇതുതന്നെയാണ് അല്ലാതെ എന്താണ് പറയുക അങ്ങനെ ഇംഗ്ലീഷ് എനിക്ക് കിട്ടാറുണ്ട് മലയാളം കിട്ടാനിത്തിരി പാടാണ് ആ എന്തു ചെയ്യാനാണ് ഇംഗ്ലീഷ് എഴുതുകയൊക്കെ ചെയ്യും വായിക്കും കേൾക്കും പറയും എല്ലാം ചെയ്യും മലയാളം പക്ഷെ പറ്റില്ല പിന്നെ ഈ ലൈബ്രറിയില് പോയിട്ട് ബുക്കുകള് വായിക്കും ലിറ്ററേച്ചർ കഥകളൊക്കെ ഇംഗ്ലീഷില് പറ്റുന്ന രീതിയിലൊക്കെ പറയും പിന്നെ പരമാവധി ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ നോക്കും അങ്ങനെയങ്ങനെ അങ്ങനെ ആ പിന്നെ ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ ഞങ്ങളിങ്ങനെ ജോയിനായി ജോയിൻ ആയി മീൻസ് നമുക്കിപ്പോള് ഇങ്ങനെ സ്പീച്ചുകള് പറയാനുണ്ടാകുമല്ലോ പ്ലഡ്ജ് പറയും സ്പീച്ച് പറയും പ്രയറിലൊക്കെ ഞാൻ കയറി പാട്ട് പാടും അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പാട്ടൊക്കെയുണ്ടല്ലോ കുറേ

അടിപൊളിയായിട്ട് അങ്ങോട്ട് പിന്നെ ട്രിപ്പ് പോകുമ്പോഴൊക്കെ അറിയാമല്ലോ പിന്നെന്താണ് പറയുക ട്രിപ്പ് പോകുമ്പോള് അങ്ങനെ നമ്മള് അന്താക്ഷരി ഇംഗ്ലീഷിലാണ് കളിച്ചത് ഒരു തമാശ ബേസിലാണ് കേട്ടോ തമാശ ബേസിലങ്ങനെ ഇംഗ്ലീഷില് കളിച്ച് പിന്നെ കുറേ കളിയാക്കലൊക്കെ കിട്ടി അടിച്ചുപൊളിച്ച് പോയി കേട്ടോ ആ സമയത്തൊക്കെ പക്ഷെ ഇപ്പോള് അങ്ങനെയൊക്കെ എന്താണ് പറയുക പിന്നെ എനിക്കൊരു ഒമാൻ മസ്ക്കറ്റിലൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവള് ഇതുപോലെ ഇത്തിരി ഇംഗ്ലീഷൊക്കെ പറയുന്ന അവളും ഇതുപോലെ തന്നെ മലയാളം വലിയതായിട്ട് അറിയില്ല കാരണം അവളവിടെ കളിച്ച് വളർന്ന് ജനിച്ചതൊക്കെ അവിടെത്തന്നെയാണ് ജനിച്ചത് നാട്ടിലും കളിച്ചു വളർന്നതങ്ങ് ഒമാനിലും മനസിലായോ അങ്ങനെ അവളുമായിട്ട് ഞാൻ ചെറിയ കമ്പനിയൊക്കെയുണ്ട് പിന്നെ അവളുമായിട്ട് ഞാനിങ്ങനെ ചാറ്റൊക്കെ ചെയ്യും ഇങ്ങനെ ഇംഗ്ലീഷും മലയാളവുമാണല്ലോ അപ്പോള് ഞാൻ ഇംഗ്ലീഷില് അവളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോള് അങ്ങനെയല്ലെടാ ഇങ്ങനെയാണ് കാര്യങ്ങള് അവളത് ക്ലിയർ ചെയ്തുതരും ക്ലാരിഫൈ ചെയ്തുതരും ഓക്കെ